ഹലോ ഇത് ഷിനി മാഡത്തിൻ്റെ കേറ്ററിംഗ് സർവീസ് ആണോ

അപ്പവും ചിക്കനും പിന്നെ ചോറും കറികളൊക്കെയാണ് അതിനൊക്കെ എത്ര റേയ്റ്റ് വരും ഒരു ഒരു പ്ലേറ്റിന് എത്രയാണ് റേറ്റ് നൂറ്റി അത് ഒരഞ്ഞൂറ്ു പേർക്കൊക്കെ അത്യാവശ്യം ആ മുന്നൂറു വച്ചാണോ ഒരു രണ്ടു മൂന്നു കൂട്ടാൻ ഇറച്ചി ഒക്കെ വരും പോത്തും ചിക്കനും ബീഫും എല്ലാംകൂടേം കൂടി മുന്നൂറാണ് പ്ലേറ്റിനുള്ളൂ

അപ്പോള് വെള്ളത്തിൻ്റെ പരിപാടികള് വെള്ളം എങ്ങനെയാണ് ലൈവായിട്ട് കൊടുക്കുകയാണോ അല്ലേ നമ്മള് കെട്ടിവരുമ്പോള് നമ്മള് അങ്ങനെ വെള്ളം കൊടുക്കില്ലേ ലൈവായിട്ട് പല അതെയോ മ്മ് അതെയോ മ്മ് മ്മ് അപ്പോള് മൊത്തം എത്ര രൂപയാണെന്നു പറയാൻ പറ്റുമോ മുന്നൂറു രൂപ ആ എന്നാല് ആ എന്നാല്പ്പിന്നെ എന്നാല്പ്പിന്നെ ഞാൻ ഇച്ചിരി പൈസയൊക്കെ കുറവു ചെയ്തുതരാൻ പറ്റുമോ ഒരു കുറച്ച് ഞങ്ങള് സ്ഥിരം നിങ്ങളെത്തന്നെയല്ലേ വിളിക്കുന്നത് അപ്പോള് എന്തേലും ഒരു കുറവു ചെയ്തുതരാൻ പറ്റുമോ ആണോ ആ എന്നാല് ഞാൻ വീട്ടിലൊന്ന് ആലോചിക്കട്ടെ വീട്ടിലൊന്ന് ആലോചിച്ചിട്ട് മക്കളും ഭർത്താവും ഒക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് ചിക്കൻ ഫ്രൈയായിട്ട് കിട്ടുവോ അതെയോ പെരളനാണോ പോത്ത്

അങ്ങനെ ആണെങ്കിൽ ഞാൻ വീട്ടിലൊന്ന് ആലോചിച്ചിട്ട് നമുക്കു തീരുമാനിക്കാം

എല്ലാ കാര്യവും നിങ്ങള് തന്നെ എന്നാല് സ്റ്റേജ് ആ ആ

ആ എന്നാല് ശരി എന്നാല് ആ ആലോചിച്ചിട്ടു തീരുമാനിക്കാം എന്നിട്ടഡ്വാൻസ് തരാം നാളെ തരാം ശരിയെന്നാല് ഓക്കെ